ഇത് വയനാട്ടിൽ നിന്ന് വിളിക്കുന്നത് ആയിരുന്നു ഈ അതെ ഓൺലൈനിൽ കണ്ടിട്ട് നോക്കിയതാണ് ഇതെവിടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത്

ഓക്കെ ആ ഓഫേർസ് ഇപ്പം കാര്യമായിട്ടെന്താണ് ഓഫേർസ് ഉള്ളത്

ഓക്കെ ഓക്കെ

എത്ര പെർസെൻ്റെജാണ് ആ ഓക്കെ ഡെലിവറി ഉണ്ടാകുമോ

ആ ഓക്കെ ഓഹ് ഓക്കെ ഇത് എത്ര പെർസെൻ്റെജാണ് ഓഫറ് ഫ്രൂട്സും ഫ്രൂട്സും വെജിറ്റബിളും തന്നെയാണ് കാര്യമായിട്ട് വരുന്നത് അല്ലേ ആ ഓക്കെ ഓക്കെ